ഇപ്പം കായിക രംഗത്ത് വിജയവും പരാജയവും അതായത് കായിക രംഗം മാത്രല്ല നമ്മള് മറ്റേത് അതായത് കലാരംഗം ആണ് എടുത്താലും നമ്മളെന്തിലാണെങ്കിലും നമുക്ക് ഒരു വിജയവും പരാജയവും ഉണ്ടാകും നമ്മളിത് പ്രതീക്ഷിച്ചിട്ടായിരിക്കും നമ്മള് എന്തിലാണെങ്കിലും അതായത് കായിക മത്സരങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ പോകുക ചിലപ്പം ജയിക്കും ചിലപ്പം വിജയിക്കും പക്ഷെ നമുക്ക് എല്ലാവരുടെയും ആഗ്രഹം നമ്മള് വിജയിച്ച് വരണം എന്നായിരിക്കും പക്ഷെ എന്തായാലും ഒരു ടെൻഷൻ ഉണ്ടാകും അതായത് എല്ലാവരുടെ മനസ്സിലും ഒരു ടെൻഷൻ ഉണ്ടാകും അത് മെയിൻ ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് ജയിക്കുമോ ജയിക്കുമോ ആ ഒരു ടെൻഷൻ ആയിരിക്കും വിജയിക്കും പരാജയിക്കും എന്നുള്ള പരാജയമായിരിക്കുമോ എന്നുള്ള ടെൻഷൻ എല്ലാവരുടെ അടുത്തും എല്ലാവരുടെ മനസ്സിലും ഉളവാകുന്ന ഒരു കാര്യമാണ് അപ്പം സ്പോർട്സിലൊക്കെ കൂടുതൽ മികച്ച പ്രകടനം നടത്താൻ പരാജയം എങ്ങനെ സഹായിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് എല്ലാം ഇപ്പം പറയില്ലേ പരാജയം എന്ന് പറഞ്ഞാൽ വിജയത്തിന് മുന്നോടി ആണെന്ന് ഒക്കെ പറയില്ലേ അപ്പം അതുപോലെ പിന്നെ പരാജയം എന്ന് പറയുന്നത് വിജയത്തിന് മുന്നോടി തന്നെ ആണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പരാജയം അതായത് ഒരു പരാജയം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത അതായത് അടുത് അടുത്തതായിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മെച്ചപെട്ട് വർക്ക് ചെയ്യാനും കാര്യങ്ങള് ചെയ്യാനും അതായത് ഹാർഡ് വർക്ക് ചെയ്തിട്ട് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടു ഒന്നും കൂടെ ജയിക്കാനുള്ള നമുക്ക് വല്ലാണ്ട് അതായത് നമുക്ക് മനസ്സില് വല്ലാണ്ട് ഉളവാകുന്ന ഒരു കാര്യമായിരിക്കും ഒന്നൊ ഒന്ന് പരാജയത്തിൻ്റെ വിജയത്തിന് മുന്നാടിയാണ് പരാജയം അപ്പം ആ പരാജയം ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മളാരും ടെൻഷൻ അടിക്കണ്ട കാര്യമില്ല